ഹലോ ഇത് ലക്ഷ്മി ഗ്യാസ് ഏജൻസി അല്ലേ ഞാൻ പുതിയതായിട്ട് ഒരു ഗ്യാസ് വാങ്ങിയിരുന്നു ഒരു ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് അപ്പം അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് എനിക്ക് ഇപ്പം നിലവിൽ എൻ്റെ കൈയ്യിൽ ഗ്യാസ് ഇല്ല ഗ്യാസ് സിലിണ്ടറ് ഞാൻ ബുക്ക് ചെയ്തിരുന്നു എൻ്റെ ബുക്കിങ് നമ്പറ് ടു ഫോർ വൺ ത്രീ ആണ് അപ്പം അത് എന്നത്തേക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുമായിരിക്കും എനിക്ക് അതൊന്ന് എൻ്റെ ഡെലിവറി ഒന്ന് സ്പീഡപ്പ് ആക്കി തന്നാൽ നല്ലതായിരുന്നു കാരണം എനിക്ക് ഈ ഗ്യാസ് സ്റ്റൗ ഒന്ന് ചെക്ക് ചെയ്യണം ഒപ്പം തന്നെ എനിക്ക് ഈ വീട്ടിൽ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് അതൊന്ന് എത്രയും പെട്ടെന്ന് ഗ്യാസ് സിലിണ്ടർ ചെയ്താൽ നല്ലതായിരുന്നു എൻ്റെ ആ ഒന്ന് നോക്കിക്കോളു എൻ്റെ ഉപഭോക്തൃ ഐ ഡി പതിനൊന്ന് എൺപത്തി എട്ട് പൂജ്യം നാല് പന്ത്രണ്ട് ആണ് ആ ഓക്കെ എൻ്റെ സ്ഥലം ആ കരുവാറ്റാ വില്ലേജിൽ കരുവാറ്റാ വില്ലേജ് വാർഡ് നമ്പർ വണ്ണിൽ ആ വീട്ടു പേര് അഞ്ജലി നിവാസ് എന്നാണ് ആ അതൊന്ന് പെട്ടെന്ന് ഒന്ന് ഡെലിവറി ചെയ്താൽ നല്ലതായിരിക്കും എന്നത്തേക്കാണ് ഇന്ന് ഉച്ച കഴിഞ്ഞോ ആ ഓക്കെ ഓക്കെ ഇന്ന് ഉച്ച കഴിഞ്ഞു ഡെലിവറി ഓക്കെ താങ്ക് യു